ജോലി സ്ഥലത്തെ സംഘർഷങ്ങളും പ്രയാസങ്ങളും എന്നു പറഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്താ പറയാ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നം നേരിടേണ്ടി വരും അതൊക്കെ നമ്മൾ അങ്ങ് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് പ്രയാസകരമായിട്ട് നമ്മൾ വരികയാണെങ്കിൽ തന്നെ എന്താ പറയുക നമ്മൾ ചെയ്യേണ്ട വർക്ക് ജോലി ചെയ്യേണ്ട കറക്റ്റ് സമയത്ത് കറക്റ്റ് നമ്മൾ ചെയ്തു തീർക്കുക അതുപോലെത്തന്നെ എന്താ പറയാ നമുക്ക് ഓരോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും ജോലിയിൽ കയറുമ്പോൾ ഓരോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഫെയ്സ് ചെയ്യേണ്ടിവരും സ്വാഭാവികം ആയിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഫെയ്സ് ചെയ്യേണ്ടിവരും പക്ഷേ നമ്മൾ അതൊക്കെ എന്താ പറയാ അതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അങ്ങ് പോവാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെന്ന് വെച്ചട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും ചിലപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യമായിരിക്കും ഓരോ ടെൻഷനും കാര്യം കൊണ്ട് ഓരോ വർക്കും പെൻഡിങ് ഒക്കെ വെച്ച് ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ നമ്മൾ എന്താകും ഓരോ പ്രാവശ്യം നമ്മൾ ഫെയ്സ് ചെയ്തു നിൽക്കുക എന്തു പറഞ്ഞാലും നമുക്ക് ജോലി എന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ജോലി പോവുക തന്നെ ഇരിക്കും അപ്പോൾ എന്തു പ്രശ്നം വന്നാലും നമ്മൾ അത് നേരിട്ട് കൊണ്ടാണ് നിക്കാന്നുള്ളത് കാര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചോദിക്കുക അതിന് നമുക്ക് ഒരു തെറ്റുമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും ജോലിസ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരോ പ്രയാസം അനുഭവപ്പെടും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോവാന്നുള്ളതാണ്